ഇപ്പോഴത്തെ ഇന്ത്യയിലെ മൻ മലയാളീസ് എന്തൊക്കെയാണ് എന്താണ് കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം കൂടുതലായിട്ടും യൂട്യൂബർ ആണ് കണ്ടന്റ് ക്രിയേറ്റർ ആണ് സഞ്ചാരി സഹ ഇപ്പം സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ ഇന്ത്യയിലുള്ളത് അപ്പോൾ അവർ എന്തുകൊണ്ട് ആണ് ആ സാഹചര്യം ആഗ്രഹിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇപ്പം പണ്ടത്തെ പോലെ അല്ല പണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റൂമിന്റെ ഉള്ളിൽ നമ്മൾ ഇങ്ങനെ അടഞ്ഞുകൂടിയിരിക്കുന്നൊരു സാഹചര്യമാണ് പണ്ടുകാലത്തുള്ളത് നമ്മുടെ താഴെ അച്ഛനും അമ്മേനെയും അതുപോലെ നമ്മുടെ കുടുംബക്കാരെയൊക്കെ പേടിച്ച് ജീവിച്ചിരുന്നവരാണ് പണ്ട് ഉള്ളത് എന്നാൽ ഇന്നെന്ന് വെച്ചാൽ അങ്ങനെ പേടിയല്ല അവരുടെ ആഗ്രഹങ്ങൾക്കൊത്ത ഉയരങ്ങളിലേക്ക് പറക്കാൻ വേണ്ടിയിട്ട് മാതാപിതാക്കളും പാരന്റ്സ് എല്ലാം അവരെ സഹായിക്കുന്നുണ്ട് അപ്പോൾ ആഗ്രഹങ്ങൾ നമുക്ക് എന്തായാലും കൂടാറാണ് പതിവ് അപ്പോൾ യൂട്യൂബർ ഒക്കെ ആവണമെങ്കിൽ യൂട്യൂബർ ഒക്കെ ആവുമ്പോൾ നമുക്കെന്തായാലും നല്ലൊരു പൊസിഷനിൽ എത്താൻ കഴിയും എന്നുള്ളൊരു ചിന്തയാണ് ഇപ്പൊഴത്തെ ചെറുപ്പക്കാർക്കുള്ളത് അപ്പോൾ അതുകൊണ്ടുതന്നെ അവരുടെ ആഗ്രഹങ്ങളും കൂടു കൂടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് സ്ഥല സ്ഥലങ്ങളിലൊക്കെ പോകാനൊക്കെ പറ്റുമല്ലോ